ഇപ്പൊൾ നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു വെച്ചാല് അവിടെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ അതായത് ഉണ്ട് പക്ഷേ സാധാ ലോക്കൽ ഹോട്ടൽ അങ്ങനത്തെയാണ് അപ്പൊൾ ഫൈവ് സ്റ്റാർ ഹോട്ടലോ അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കാരണം മലമുകളിലാണ് അപ്പോൾ അവിടെ വന്നിട്ട് ഈ ഹോട്ടലിൻ്റെ ബുദ്ധിമുട്ട് പക്ഷെ ഭക്ഷണം നമുക്ക് അത്യാവശ്യം ലോക്കലായിട്ട് നമുക്ക് വെച്ച് കഴിക്കാം അല്ലെങ്കിൽ എന്താ പറയാം നേരത്തെ നമ്മൾ കൊണ്ട് പോകുവാണേൽ ഓക്കേ അവിടെ പോയിട്ട് ഹോട്ടലുകളിൽന്ന് അവിടെ കിട്ടുന്ന ലോക്കൽ ഭക്ഷണമേ കഴിക്കാൻ പറ്റുകയുള്ളു നല്ല രീതിയിൽ ഉള്ള അവിടുത്തെ ഭക്ഷണം കഴിക്കാം അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള ഭക്ഷണം അവിടെ കിട്ടണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ വരുന്നത് റേഞ്ചിൻ്റെ പ്രശ്നമാണ് റേഞ്ച് അതായത് ഒന്നാമത് ഹിൽ ഏരിയയാണ് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും റേഞ്ചിൻ്റെ ബുദ്ധിമുട്ട് അവിടെ വരും അപ്പൊൾ രണ്ട്മൂന്ന് സിം കിട്ടും ബാക്കി കുറച്ചു സിമ്മുകളില് റേഞ്ചും കാര്യങ്ങളും കുറവായിരിക്കും പിന്നെ എന്താ പറയ കാലാവസ്ഥ പൊതുവെ തണുപ്പും കാര്യങ്ങളും തന്നെയാണ് അപ്പൊൾ പിന്നെ പകൽ സമയങ്ങളിൽ ഇത്തിരി ചൂടുണ്ടാകും പിന്നെ ഉച്ച ഒക്കെ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും മഴ ഉണ്ടാകണമെന്നില്ല എല്ലാ സമയത്തും എന്താ പറയുക താമസ സൗകര്യങ്ങള് നമ്മള് ഉദ്ദേശിക്കുന്ന പോലെ ഉണ്ടാവണം എന്നില്ല പിന്നേ ഹോട്ടൽ കാര്യങ്ങളൊക്കെ കുറവായത് കാരണം കൊണ്ട് ചിലപ്പോൾ ബുക്കിംഗ് ഉണ്ടാകും അപ്പൊൾ ചിലസമയത്ത് സീസൺ സമയത്ത് എന്ന് പറയുമ്പോൾ ബുക്കിംഗ് ഫുള്ളായിരിക്കാം അപ്പൊൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും പിന്നെ അവിടുത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഗതാഗത സംവിധാങ്ങൾ നോക്കുവാണ് എന്ന് പറയുമ്പോൾ റോഡ് ചെറിയ റോഡാണ് അതായത് വലിയ റോഡൊന്നുമല്ല അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകാൻ പിന്നെ അഞ്ച് മണിവരെ നമുക്ക് അവിടേക്ക് പാസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള സംവിധാനം ഇല്ല അഞ്ച് മണികഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും വെയിറ്റ് അതായത് നമ്മുടെ ചെക്ക് പോസ്റ്റ് പോലത്തെ ഉണ്ട് അപ്പൊൾ അവിടെ ഗാർഡുകൾ വന്നിട്ട് ക്ലോസ് ചെയ്യും അഞ്ച് മണികഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റേ അടിക്കാൻ മാത്രേ പറ്റു അവിടെ പോയിട്ട് അപ്പോൾ അവിടെ സ്റ്റേ അടിക്കാൻ പോകുവാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ എവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നെ അവിടുത്തെ ആ ഹോട്ടലിലത്തെ ബുക്കിങിൻ്റെ പേപ്പറും കാര്യങ്ങളും ഒക്കെ കാണിച്ച് കൊടുക്കണം പിന്നെ പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്